ഇപ്പം ആരോഗ്യ പദ്ധതി കയർ വികസന പദ്ധതി കർഷക വികസന പദ്ധതി പഞ്ചവത്സര പദ്ധതി അങ്ങനെ കുറച്ച് പദ്ധതികളെ പറ്റി മാത്രമേ എനിക്കറിയുള്ളൂ എനിക്ക് ശരിക്കും ഞാനങ്ങനെ കണ്ടും കേട്ടിട്ടൊക്കെ ഉള്ളത് ആരോഗ്യ വികസന പദ്ധതിയെ കുറിച്ചാണ് എനിക്ക് നേരിട്ട് അതുമായിട്ട് ഇൻടറാക്റ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം വന്നിട്ടില്ലെങ്കിലും നമ്മുടെ നാട്ടിലും നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ആരോഗ്യ വികസന പദ്ധതി അതിൽ വരുന്ന പ്രോസസ്സ് ഫണ്ടൊക്കെ ഒരുപാട് ആൾക്കാർക്കു സഹായമൊക്കെ ഉണ്ടായേനെ പറ്റി ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട് അതായത് അവർക്കു വേണ്ട സഹായം ധനസഹായമായിക്കോട്ടെ അതുപോലെതന്നെ അവർക്ക് അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവർക്കാ സാഹചര്യങ്ങൾ കൊണ്ട് അവരുടെ ആ ആരോഗ്യ സ്ഥിതി മോശമായ ആരോഗ്യസ്ഥിതി മറികടക്കാൻ സാധിക്കുമോ അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനു വേണ്ട സാഹചര്യങ്ങളും അതിനു വേണ്ട സംവിധാനങ്ങളും ഒക്കെ ഈ പദ്ധതികളിലൂടെ ഒരുപാട് ഒരുക്കി കൊടുക്കാറുണ്ട് അപ്പം ഒരു ഫിനാൻഷ്യലി സ്റ്റേബിളല്ലാത്ത ഒരാൾക്കാർക്ക് നല്ല രീതിയിൽ തന്നെ ധനസഹായം പിരിവെടുത്താണെങ്കിലും പിന്നെ ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാരൊക്കെ സഹായിച്ചാണെങ്കിലും അവർക്കൊരുപാട് രീതിയിൽ സഹായം ഹെൽപ്പ് കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആണെങ്കിലും ആരോഗ്യ വികസന പദ്ധതി ക്ലിനിക്ക് അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ ആരോഗ്യസ്ഥിതി ഒക്കെ ചെക്ക് ചെയ്യുന്നു അവരെയൊക്കെ എന്താ ഒരു ഇന്ന ഒരു ലിസ്റ്റിലോട്ട് ഉൾപ്പെടുത്തും ആ ഒരു ലിസ്റ്റ് തിരിച്ചു ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തി അവർക്കു വേണ്ട സഹായങ്ങളൊക്കെ നൽകും അങ്ങനെയൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ വികസന പദ്ധതി നല്ല രീതിയിലാൾക്കാരെ സഹായിക്കുന്നു പിന്നെ വരുന്നത് കർഷക വികസന പദ്ധതി കർഷകർ നമ്മുടെ നാട്ടിൽ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ കാരണം എന്താ അവരുടെ അവരുടെ ആ വികസനം നടക്കുന്നില്ല അപ്പം അതിനുവേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത കർഷക വികസന പദ്ധതി അവർക്കു വേണ്ട കാർഷിക ലോണുകൾ പിന്നെ നമ്മുടെ പ്രളയത്തിൻ്റെ സമയം അല്ലെങ്കിൽ മഴയൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് കൃഷിയൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിനുവേണ്ട നഷ്ട പരിഹാര സഹായങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊടുക്കുന്നുണ്ട്